നമ്മുടെ രാജ്യത്ത് കുറ്റ കൃത്യങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും ഉദാഹരണമാണ് സ്ത്രീധന പീഡനങ്ങളും സ്ത്രീകൾക്ക് എതിരായുള്ള അതിക്രമങ്ങളും ഓരോ ദിവസവും ദിനം പ്രതി ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നിയമങ്ങൾ കൂടുതൽ കഠിനമാകേണ്ടതുണ്ട് നിയമങ്ങൾ എഴുതിവയ്ക്കാൻ മാത്രമായിട്ട് അല്ല ഉപകരിക്കേണ്ടത് അത് പ്രാബല്യത്തിൽ വരാനും നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രെസെൻ്റ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നുള്ള പീഡനങ്ങളാണ് ശാരീരികവും മാനസികവും ആയിട്ടുള്ള പീഡനവും സ്ത്രീധനത്തിനെതിരായിട്ടുള്ള പീഡനങ്ങൾ ഇതെല്ലാം മാറ്റണമെങ്കിൽ നിയമങ്ങൾ എഴുതിവച്ചിരിക്കുന്ന നിയമങ്ങൾ പ്രാബല്യത്തിൽ വരണമെന്നാണ് രണ്ടാമത് ആയി ഒരു കാര്യം പറയാനുള്ളത് നിയമങ്ങൾ എത്രയും പെട്ടന്ന് തന്നെ തീർപ്പ് കൽപിക്കേണ്ടതാണ് ഒരു കുറ്റകൃത്യം നടന്നാൽ അല്ലെങ്കിൽ സ്ത്രീ ഏതെങ്കിലും എതിരായിട്ടുള്ള കാര്യങ്ങൾ നടന്നാൽ സ്ത്രീക്ക് എതിരെ ആയിട്ടോ കുട്ടികൾക്ക് എതിരെ ആയിട്ടോ നടന്നാൽ അത് ഉടനടി അതിൻ്റെ പ്രതിവിധി കണ്ടെത്തുകയും അതിന് കഠിനശിക്ഷ നൽകുകയും വേണമെന്ന് ആണ് എൻ്റെ അഭിപ്രായം അതിൽ അതിൽ കൂടാതെ ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് ആ കേസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ കഴിഞ്ഞാൽ ഒത്തിരിക്കാലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ വിധി കർത്താക്കളും എല്ലാം ചെയ്യുന്നതെങ്കിൽ അത് വളരെയധികം കുറ്റവാളികളെ കുറ്റം ചെയ്യുന്നതിൽ പ്രേരിപ്പിക്കും ഒത്തിരിനാൾ കൂടി ജീവിക്കാലോ എന്ന് വിചാരിച്ച് അപ്പോൾ ശിക്ഷകൾ അപ്പപ്പോൾ നടപടി എത്രയും വേഗത്തിൽ നടപടി ക്രമങ്ങൾ നീക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം